നമ്മുടെ നാട്ടില് കായിക രംഗത്തേക്ക് കായിക പ്രതിഭകൾ വരുന്നത് ഫുട്ബോളിലേക്കാണ് കൂടുതലായിട്ടും വരുന്നത് ഫുട്ബോളിലേക്കാണ് നമ്മളിപ്പോള് നമുക്ക് ആഷിക് കുര്ണിയൻ അനസ് എടത്തൊടിക എന്നീ പ്ലെയേഴ്സൊക്കെ അവര് പിന്നെ നമ്മളിപ്പോള് അവരെ കണ്ടത് നമ്മള് ഹൈയെസൽന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നു പറഞ്ഞാല് ഒരു പിന്നെ നമ്മളെ പിന്നെ ഫുട്ബോൾ മാച്ചുണ്ടല്ലോ ഇപ്പോള് ലീഗ് നമ്മള് അതിലൂടെയാണ് എനിക്കൊക്കെ പരിചയം പരിചയംഎന്നു പറഞ്ഞാല് കണ്ടുപരിചയിച്ച് നമ്മളവരെക്കണ്ട് പരിചയം വന്നത് അതില് രണ്ട് പേരും ഇന്ത്യൻ ദേശിയ ഫുട്ബോൾ ടീമിലേക്ക് സെലക്ഷനും കിട്ടി അതിലിപ്പോള് അനസെടത്തൊടികാന്ന് പറഞ്ഞ അയാള് പിന്നെ നമ്മളെ ഒരു ടൈം കഴിഞ്ഞപ്പോള് മൂപ്പരിപ്പോള് കളിക്കുന്നില്ല പിന്നെ ആഷിക്ക് കുരുണിയൻ ഇപ്പോഴും പിന്നെ ഇന്ത്യൻ ടീമിലേക്ക് കളിക്കുന്നുണ്ട് പിന്നെ നമ്മള് പറയണ്ടല്ലോ മലപ്പുറത്തരീക്കോട്ടുന്ന് ഫുട്ബോളിലേക്ക് എത്രയോ പിന്നെ കായിക പ്രതിഭകൾ വന്നിട്ടുണ്ട് അതിലിപ്പോള് യു ഷറഫ് അലി അയാള് പിന്നെ കളിയക്കെ കഴിഞ്ഞതിനുശേഷം എം എസ് പി അതില് കമാൻ്റൻറ്റായിട്ട് ഇപ്പോള് റിട്ടയര് ചെയ്തൂ പിന്നെ ആസിഫ് സഹീര് അങ്ങനെ ഇഷ്ടംപോലെ നമുക്കറിയാവുന്ന കായിക രംഗത്തേക്ക് വരുന്നതധികവും ഫുട്ബോളിലേക്കാണ് നമ്മള് അവരൊക്കെ പിന്നേ ഫുട്ബോളെന്നുന്നൊള്ള മലപ്പുറത്തുകാര് കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കവരെ കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്